ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാരിന് മോശമായ പൊതുസേവനങ്ങൾന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആ നമ്മുടെ രീതിയിൽ എന്താപറയാ നമ്മുടെ വീടുകളിൽ പൊതുവായിട്ട് ഇടപഴകാത്ത കുറെ ആ വിഷയങ്ങളൊക്കെയുണ്ട് എന്തെന്ന് വെച്ച്കഴിഞ്ഞാൽ ഇപ്പം ആദിവാസി സമൂഹത്തിൽ തന്നെ അവർ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ഇടപഴകുന്നില്ല കാരണംവെച്ച് കഴിഞ്ഞാൽ വണ്ടിവിളിച്ച് കഴിഞ്ഞാൽ വണ്ടി ആരും വിളി വരുന്നില്ല പിന്നെ എവിടെന്നിപ്പം എന്തായാലും പോകണമെങ്കിൽ തന്നെ മാനന്തവാടിയെന്ന സ്ഥലത്തെക്കാണ് പോവണ്ടത് ഇവിടെന്ന് ഇത്രയും ദൂരം പോകണമെങ്കിൽ അവർക്കെന്തായാലും നല്ലൊരു ക്യാഷ് എന്തായാലും വേണം അപ്പോൾ പുറമെന്നൊരു വണ്ടിവിളിക്കാണെങ്കിൽ അപ്പോൾ അവർക്കായിട്ടൊരു വണ്ടിയോ കാര്യങ്ങളൊ ഒന്നുമില്ല അപ്പോൾ ഭയങ്കരയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ റോഡ് എന്ന്പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ ആശുപത്രിലേക്ക് കൊണ്ടുപോവുന്നനേരത്ത് കുണ്ടും കുഴിയും ചാടിയിട്ട് വേണംപോകാന് അപ്പോൾ അവിടെയെത്തുമ്പോഴേക്ക് ഇവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിട്ട് മാറാറുണ്ട് അപ്പം അതൊക്കെയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പ ആരോഗ്യം ഇതിൽ പറയുവാണെങ്കിൽ മാനന്തവാടി ആശുപത്രിയിൽ ഇഷ്ടം പോലെ മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച്കഴിഞ്ഞാൽ അവിടെ എന്താപറയാ ഇപ്പം ഡോക്ടറില്ലാത്ത അവസ്ഥയും ഡോക്ടറാണെങ്കിൽ വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡോക്ടർമാരാണ് പലതും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഉള്ളത് ആ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള രാഷ്ട്രീയം രാഷ്ട്രീയക്കാരുമായി നമ്മുടെ ഇപ്പം സർക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്